നമ്മുടെ രാജ്യത്തെ ഏറ്റവും വിനോദമായ ഒരു കായിക കലയാണ് നമ്മുടെ ക്രിക്കറ്റ് ക്രിക്കറ്റ് താരങ്ങൾ എം എസ് ധോണി സച്ചിൻ തിണ്ടുക്കർ ഗാങ്കുലി അങ്ങനെ അനേക താരങ്ങൾ നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ഓരോ വ്യക്തികളാണ് പിന്നെ നമ്മുടെ ഒരു കായിക വിനോദം എന്ന് പറഞ്ഞാൽ ഓട്ടം നമ്മുടെ ഓട്ടത്തിന് വേണ്ടി നമ്മുടെ നാട്ടിനെ ആദ്യമായ ഒരു വനിതയാണ് പി ടി ഉഷാ പിന്നെ ശൈനി എബ്രഹാം അങ്ങനെ പലരുമാണ് നമ്മുടെ ഈ നടിനെ നാടിന് വേണ്ടി പോരാടുകയും പൊരുതുകയും കായിക വിനോദത്തിൽ അനേകർക്ക് കയ്യിൽ നിന്ന് കപ്പുകൾ വാങ്ങിക്കുകയും തന്നെ മെഡലുകൾ വാങ്ങുകയും സ്വർണ്ണ മെഡല ഒക്കെ വാങ്ങിയവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി അനേകം കായിക കലകൾ ചെയ്ത അനേകം വ്യക്തികളുണ്ട് അതിൽ പ്രധാനമായ ആൾ ഒരു കളിയാണ് നമ്മുടെ പിന്നെ ഈ ക്രിക്കറ്റ് കളി ഈ ക്രിക്കറ്റ് കളിയിലെ സച്ചിൻ തണ്ടിക്കറാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ആദ്യമായി അനേകം നാളുകളായി പിന്നെ ഇഷ്ടം പോലെ ട്രോഫികൾ ഒക്കെ വാങ്ങിയ രാജ്യത്തിൻ്റെ ഒരു പേര് നിലനിർത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞു പിന്നെ ധോണി എം എസ് ധോണിയാണ് പിന്നെ നല്ല കലയിലൊരു ക്യാപ്റ്റനായി മുന്നോട്ട് പോയത് പിന്നെ ഗങ്കുലി അങ്ങനെ മറ്റു പലരും നമ്മുടെ ഈ ഒരു ഈ ഒരു കലയെ മുന്നോട്ട് കൊണ്ട് പോകാൻ വേണ്ടി അനേകം ആളുകൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി തമിഴ് നാട്ടിൽ നിന്ന് കർണാടകയിൽ നിന്ന് ആന്ധ്രായിൽ നിന്ന് അങ്ങനെയൊക്കെ നമ്മുടെ ഇന്ത്യയ്ക്ക് വേണ്ടി പല രാജ്യങ്ങളിൽ പോയി അനേകമായി കപ്പുകളൊക്കെ നേടി നമ്മുടെ രാജ്യത്തെ നിലനിർത്തിയ ഒരു കലയാണ് ഈ ഒരു കായിക കലയാണ് ഈ പിന്നെ ഈ ക്രിക്കറ്റ് കളി അതുപോലെ തന്നെ പി ടി ഉഷ നല്ലൊരു വനിതയാണ് ധീരമായി നമ്മുടെ നാടിന് വേണ്ടി അനേകം പിന്നെ ആൾക്കാർ ഇതിൽ ട്രെയിനിങ് കൊടുക്കുകയും കോച്ചിങ് കൊടുക്കുകയും ഇപ്പോഴും അവർ അത് പ്രവർത്തനം പ്രാവർത്തികമായി കൊണ്ടുപോകുന്ന ഒരു പന വ്യക്തിയാണ് പി ടി ഉഷ അവരും ഇതുപോലെ കായികങ്ങളെ മുന്നോട്ട് കൊണ്ട്പോകാൻ വേണ്ടി നമ്മുടെ നാടിന് വേണ്ടിയായിട്ട് പല ആളുകളെയും ഇപ്പം കോച്ചിങ് കൊടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഒരു നല്ല കലകളായിട്ടാണ് ഈ പിന്നെ ക്രിക്കറ്റും ഓട്ടം ഹോക്കി കളി അങ്ങനെ പല കളികളും നമ്മുടെ ഈ രാജ്യത്ത് കൊണ്ടുവരുന്ന അനേകം ഏഷ്യൻ ഗെയിമിലൊക്കെ നല്ല പൊരുതി നല്ല മെഡലുകളൊക്കെ നേടി ഈ കൊച്ച് കൊച്ച് വനിതകളൊക്കെ മുന്നോട്ട് കൊണ്ട് വന്ന ഒരു ധീര വനിതയായിട്ടാണ് പി ടി ഉഷയും മുന്നോട്ട് പോയത് അങ്ങനെ നമ്മുടെ ഈ നാടിന് വേണ്ടി പൊരുതുന്ന അനേകം ആൾക്കാരുണ്ട് അവർക്കൊക്കെ നല്ല കോച്ചിങ് കൊടുക്കാൻ വേണ്ടി ഈ പിന്നെ ധോണിയ സച്ചിൻ തെണ്ടുക്കറ് പി ടി ഉഷ ശൈനി അബ്രഹാം അങ്ങനെ അനേകം കായിക താരങ്ങളിൽ നമ്മുടെ ഈ നാട്ടിൽ ഉണ്ട് അവരെല്ലാം നമ്മളുടെ നാടിന് വേണ്ടിയും അവരുടെ ഒരു മുന്നോട്ടുള്ള ഒരു പോരാട്ട പോരാട്ടത്തിൽ അനേകം ആൾക്കാർക്ക് നല്ല വഴികളൊരുക്കി കൊടുത്ത ധീരതയുള്ള ആൾക്കാരായിട്ടാണ് നമ്മുടെ നാടിനെ അവർ സമ്പന്ന നയിച്ച് കൊണ്ടിരിക്കുന്നത് അങ്ങനെ പല ആൾക്കാരും നമ്മുടെ നാടിന് വേണ്ടി ഈ കലകളെ മുന്നോട്ട് കൊണ്ട് പോയിട്ടുണ്ട് ഓക്കെ ശരി